ഞാൻ കാനറാ ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ ആണേ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ആ പതിനായിരം രൂപയുടെ സാധനം ഗൂഗിൾ പേ വഴി മേടിച്ചു അപ്പോൾ അവർക്ക് ഞാനീത് ചെയ്തപ്പോഴത്തേനും അവർക്ക് ആ പൈസ ഇത്രയും നേരമായിട്ടും കിട്ടിയിട്ടില്ല പക്ഷേ ബാങ്കീന്ന് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽനിന്ന് അത് പോയി പോയതായിട്ട് കാണിക്കുന്നും ഉണ്ട് ചെക്ക് ചെയ്തായിരുന്നു ഉം ആ അവർ പറഞ്ഞു അവരുടെ ഗൂഗിൾ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവരുടെ അക്കൗണ്ടിലോട്ട് പക്ഷേ എൻ്റെ ബാങ്കിൽനിന്ന് എൻ്റെ അക്കൗണ്ടീന്ന് പൈസ പോയിട്ടും ഉണ്ട് ആ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് സെവൻ എയ്റ്റ്

ആ ഓക്കെ

ആ ആ ആ പക്ഷേ ആ ആ പക്ഷേ എൻ്റെ എൻ്റെ ഇതിൽനിന്ന് പോയി എൻ്റെ ഇതിൽനിന്ന് ബാങ്കിന് ഇതായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് അവർക്ക് കിട്ടിയിട്ടില്ല മ് ആയിട്ടുണ്ട് കാണിക്കുന്ന് പക്ഷേ ഇത് അത് അവർക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഇതിൽനിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ അവർക്ക് ക്യാഷ് കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ടേ

ഏഴ് ദിവസം വരെ അത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക അവർക്ക് എങ്ങനെ ഞാൻ പൈസ കൊടുക്കും അവരുടെ സാധനം വേടിച്ചതല്ലേ അവരുടെ കയ്യിൽ നിന്ന്

അവർ അവർ ഞാൻ അവർ പറ്റിക്കുകയാണ് എന്നല്ലേ അവർ ഓർക്കത്തുള്ളൂ മ് ഞാൻ അവരോട് ഒന്നു പറഞ്ഞു നോക്കട്ടെ അവർ പറഞ്ഞു സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽനിന്ന് അല്ലാതെ ഇനി പൈസ കൊടുക്കുമ്പോൾ ആ പൈസ ഈ പൈസ എല്ലാം പോകത്തില്ലേ ആണെന്ന് ഉറപ്പാണോ ഓക്കെ താങ്ക് യു